ഞാന് ഓണ്ലൈനിലൊരു ഷേവിംഗ് ക്രീം ഓര്ഡർ ചെയ്തായിരുന്നു അത് ഓര്ഡർ ചെയ്ത് അവർ ഇന്ന ഡേറ്റിന് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ എനിക്ക് മെസ്സേജ് വരികയും അതിന് ഡെലിവറി ഓണ് ദ സ്പോട്ടിലാണ് ഓണ് ദ സ്പോട്ടില് പേമെന്റ് എന്നൊക്കെയുള്ള ഡെലിവറി ടൈമില് പേമെന്റ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതനുസരിച്ച് ഞാനത് ആ സാധനത്തിന് ഓര്ഡർ ചെയ്യുകയും ചെയ്തു ഷേവിംഗ് ക്രീം ആണെങ്കിൽ അതനുസരിച്ച് ഞാനാ പേമെന്റ് വലിയ എമൌണ്ട് ഒന്നു ഇല്ലായിരുന്നു പത്തോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു സംഭവമാണ് ഞാന് പര്ച്ചേസ് ചെയ്തത് അത് ഞാന് മേടിച്ചു മേടിച്ച് അതിന്റെ ഡെലിവറി ബോയി പോയി അതെല്ലാം കഴിഞ്ഞിട്ട് എന്നാൽ ഞാനത് പിറ്റേ ദിവസത്തേക്ക് അത് യുസ് ചെയ്യാം എന്ന് വെച്ചുകൊണ്ട് രാവിലെ എടുത്ത് ഞാനത് ഓപ്പണ് ചെയ്ത് ഓപ്പണ് ചെയ്തിട്ടത് എടുത്തു അതിന്റെ കവറെല്ലാം നോക്കി ഡേറ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞ് പതിയെ എടുത്ത് വെച്ചുകൊണ്ട് ഞാന് മുഖത്ത് ബ്ലേഡൊക്കെ സെറ്റ് ചെയ്ത് ഷേവിംഗ് ക്രീം എടുത്ത് മുഖത്തിട്ട് വെള്ളം ഒഴിച്ചു ഷേവിങ്ങൊക്കെ ഇങ്ങനെ പതപ്പിച്ച് എല്ലാം എല്ലാം ഇട്ട് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു രണ്ടു മിന്റ്റ് കഴിഞ്ഞില്ല അത്രയും പോലും ആയിട്ടില്ല എന്ന് വേണം ഒരു സെക്കൻറ്റ് പോലും ഒരു മിനുട്ട് പോലും ആയിട്ടില്ല എന്ന് വേണം പറയാന് എന്റെ മുഖം അങ്ങോട്ട് ചൊറിയാന് തുടങ്ങി ചൊറിയാന് തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ല കൊതുക് കടിച്ചതാണെന്ന് വിചാരിച്ചു കൊണ്ട് ഞാന് ചൊറിഞ്ഞു എന്ത് വേണ്ടി പറഞ്ഞു പിടിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇതുകൊണ്ട് എനിക്ക് ദോഷം ഫലം ആണോ ഉണ്ടായേ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് വന്നത് അവസാനം പെട്ടെന്ന് തന്നെ കഴുകുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്തിട്ട് പിന്നെ വെളിച്ചെണ്ണ പോലുള്ള ഐറ്റം തേക്കും എല്ലാം ചെയ്ത് ഒരു വിധത്തില് അത് മേടിച്ച് എനിക്കാകെപ്പാടെ ഒരു ഇത് ഒരു നെഗറ്റീവ് ഇതാണ് നമുക്ക് തന്നത്